ഞങ്ങളുടെ പ്രദേശത്ത് കളിക്കുന്ന കളികളെന്ന് പറയുമ്പോൾ ബാറ്റ് കളി ക്രിക്കറ്റ് കളി പിന്നെ അങ്ങനെയുള്ള കളികളൊക്കെയാണ് കളിക്കുന്നത് മറ്റുള്ളതുമായിട്ട് വലിയ വ്യത്യാസമോ വ്യത്യാസങ്ങളൊന്നുമില്ല ഇതൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിലെ കളികളൊക്കെ പിന്നെ അല്ല കായിക ഇനങ്ങളെന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള ഇതൊന്നുമില്ല അല്ലാതെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കളികളൊക്കെണ് നമ്മുടെ നാട്ടില് കളിക്കുന്നത്